ഹോട്ടൽ വാ ഹലോ ഹോട്ടൽ വാണി ആണോ ആരാണ് സംസാരിക്കുന്നത് മാനേജറാണോ സാറേ ഞാനിങ്ങനെ കുറച്ചു ഫുഡിനോക്കെ ഓർഡര് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാന് ബില്ലും ബില്ലും അടച്ചതാണ് അഞ്ചുമണിക്കു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡ് സമയത്തിന് സാറേ ഫുഡ് കിട്ടോ അതിന്റെ പൈസ ഞാനടച്ചതാണ് രണ്ടായിരം രൂപ അടച്ചതാണ് പക്ഷെ എനിക്കത് വന്നിരിക്കുന്നത് ഫെയിൽഡെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത് സാറേ അപ്പോള് ഞാൻ പൈസ അടച്ചു പക്ഷേ ഫൈൽഡെന്നും പറഞ്ഞാണ് കാണിക്കുന്നത് അതുകൊണ്ട് അത് കിട്ടിയോ സാറേ പൈസ കിട്ടിയോ കിട്ടിയല്ലേ അപ്പോള് സാറേ സമയത്തിന് ഫുഡ് കിട്ടുമല്ലോ അല്ലെങ്കില് ഞാന് ബിരിയാണിയും പൊറോട്ടായും ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണി ആ കേട്ടോ ചിക്കൻ ബിരിയാണി ഓർഡര് ചെയ്തിരിക്കുന്നത് അഞ്ചു മണിയാകുമ്പോള് കിട്ടുവല്ലേ അല്ലെ സാറേ പേയ്മെൻറ്റ് ഞാൻ നോക്കിയപ്പോൾ പേയ്മെൻറ്റ് കിട്ടി ചെന്നിട്ടില്ലാ എന്നറിഞ്ഞു അപ്പോള് ഞാനാകെ വിഷമിച്ചു പോയി യ്യോ ഇനി സമയത്തിന് ഫുഡ് കിട്ടോ എന്നായിരുന്നു എനിക്കെ പേടിയായിരുന്നു അത് പൈസ കിട്ടിയല്ലോ സമാധാനമായി സാ അഞ്ചു മണിക്ക് കിട്ടുമല്ലോ അല്ലേ ഓക്കേ സാറേ താങ്ക് യു സോ മച്ച് സാർ